നമസ്കാരം എൻ്റെ പേര് അനിതയെന്നാണ് ഞാന് കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഒരു പാൻ കാർഡിനായിട്ട് ഓൺലൈനിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അക്ഷയ സെൻറ്റർ വഴി പക്ഷെ എനിക്ക് ഇതുവരെ എൻ്റെ പാൻ കാർഡ് തയാറായി തയാറായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ല എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് പാൻ കാർഡ് വേണമായിരുന്നു എൻ്റെ പല അക്കാഡമിക് പർപ്പസിനും പിന്നെ എനിക്ക് ബാങ്കിൽനിന്ന് ലോൺ എടുക്കുന്നതിനും ഒക്കെ ആവശ്യമായിട്ട് പാൻ കാർഡ് വേണമായിരുന്നു അതുകൊണ്ടാണ് അപേക്ഷിച്ചത് പക്ഷെ ഇതുവരെ അതിനെപ്പറ്റി ഒരു വിവരവും എനിക്ക് ലഭിച്ചിട്ടില്ല എന്താണ് എന്താണ് എൻ്റെ പാൻ കാർഡിൻ്റെ അപേക്ഷയെപ്പറ്റിയുള്ള അവസ്ഥ എന്താണെന്ന് അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻവേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോള് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയില് അത് അപ്ഡേറ്റ് നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജനനത്തീയതി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഒന്നാണ് എൻ്റെ തിരിച്ചറിയൽ നമ്പര് ഇ കെ പി റ്റി നാല് രണ്ട് അഞ്ച് ആറ് ജെ ഒന്ന് പൂജ്യം എന്നാണ് ഈ രണ്ടു വിവരവും മതിയാകുമെന്ന് വിശ്വസിക്കുന്നു ഇതില് ഇതുപയോഗിച്ചിട്ട് എൻ്റെ പാൻ കാർഡിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് ദയവ്ചെയ്ത് അറിയിക്കണം അതനുസരിച്ച് ബാക്കി ബാങ്കിലെയും മറ്റു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻവേണ്ടിയിട്ടാണ് എന്തെങ്കിലും രീതിയില് ഇനി എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഞാൻ വിളിച്ച ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കില് പാൻ കാർഡ് സമർപ്പിക്കേണ്ട സമയത്തുതന്ന അപേക്ഷയിൽ ഉള്ള ഫോൺ നമ്പറില് വിളിക്കുകയോ ചെയ്താൽ മതിയാകും